സ്ത്രീകൾ പണ്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ ജോലി ചെയ്ത് ഓരോ ദിവസം കഴി ഈ കഴിഞ്ഞ് പോകുന്നവരായിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും ജോലിയുണ്ട് പണ്ടുള്ളവർക്ക് പുറത്ത് എന്തൊക്കെയാ ചെയ്യുന്നത് എന്തൊക്കെയാ നടക്കുന്നത് ഒന്നും അറിയില്ല വീട്ടിൽത്തെ ജോലി ചെയ്യുക ഭർത്താവിനെയും മക്കളെയും നോക്കുക വീട്ടിൽത്തെ പണിയെടുത്ത് നിൽക്കുന്ന സ്ത്രീകളാണ് ഭൂരിപക്ഷവും പക്ഷെ കാലം കഴിയുംതോറും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ പുരുഷ മാരെക്കാളും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് മുന്നിട്ട് നിൽക്കുന്നത് ബാങ്കിൽ പോവേണ്ട കാര്യമാണെങ്കിലും ആദ്യം ഒരു പാസ്ബുക്ക് കൊടുത്തിട്ട് ബാങ്കിൽ പോയി പൈസ അടയ്ക്കാൻ പോലും അറിയാത്ത സ്ത്രീകളായിരുന്നു നമ്മളെ സമൂഹത്തിൽ പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതലും കണ്ട് വരുന്നത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണനയുള്ളത് കാരണം അവർ പുരുഷന്മാരെക്കാളും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തന്നെ അവർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ എത്രയും വേഗം തന്നെ കല്ല്യാണം കഴിച്ച് സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ഇതാണ് കണ്ട് വരുന്നത് പക്ഷെ ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര കഴിഞ്ഞാലും അവർക്ക് വിദ്യാഭ്യാസം അവർക്ക് എത്ര മാക്സിമം പഠിക്കാൻ പറ്റുമോ അത്രയും പഠിച്ച് അവർ നല്ലൊരു ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ സ്ത്രീകളും ചിന്തിക്കുന്നത് അവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ മുന്നിട്ട് നിൽക്കുന്നത്